ആ നമസ്ക്കാരം ചേട്ടാ ഒരാള് പറഞ്ഞ് വിളിക്കുകയാണ് ചേട്ടൻ രമേശൻ ആ ഞാൻ ഇങ്ങനെ ഒരു വീട് കെട്ടുന്നുണ്ട് ഒരു നാല്കെട്ട് വീട് കെട്ടുന്നുണ്ട് അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വിളിക്കുകയാണ്

ആ ഞാൻ ഒരു നാല്കെട്ട് വീടാണ് കെട്ടുന്നത് അപ്പോൾ അതിന് സെൻട്രൽ ആയിട്ടിപ്പോഴൊരു വെള്ളം ഇങ്ങനെ മഴപെയ്യുമ്പോൾ വെള്ളം വീഴുന്നപോലെയും അപ്പോൾ അങ്ങനെത്തെ ഒരു പ്ലാനിലാണ് ഇപ്പോൾ വീട് നോക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ്

ആ ഈ മരം ഫർണിച്ചേഴ്സൊക്കെ ഞങ്ങൾ തന്നെ എടുക്കണോ അതോ മൊത്തായിട്ട് ചേട്ടൻ ചെയ്യുകയാണോ അതോ അങ്ങനെ

ആ അപ്പോൾ ലേബർ ചാർജ് ചേട്ടൻ എടുക്കുമോ അതോ

മൊത്തം എടുക്കുകയെന്ന് വെച്ചാൽ എങ്ങനെ ആയിരിക്കും റേറ്റ് ഒക്കെ വരിക ആ പുതിയതായിട്ട് കെട്ടുകയാണ് അപ്പോൾ മൊത്തമായിട്ട് ചെയ്യണം

ആ ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര ടൈം എടുക്കും അതൊക്കെ

ആ അപ്പോൾ ഞങ്ങളിപ്പോൾ വരികയാണെന്ന് വെച്ചാൽ ചേട്ടനും കൂടെ ഉണ്ടാവുമോ ഇതിൻ്റെ കൂടെ അതോ ഇപ്പോൾ ഞങ്ങള് മാത്രം പോയിട്ട് പണിക്കാരായിരിക്കുമോ കൂടെ ഉണ്ടാവുക

ആ ആ ഡിസൈൻസൊക്കെ എന്റെ ഈ നമ്പറിലേക്ക് ഒന്ന് അയച്ച് തന്നാൽമതി അപ്പോൾ ഞാൻ എനിക്ക് വേണ്ട ഏത് ഡിസൈൻസ് പറഞ്ഞിട്ട് ഞാൻ ചേട്ടനെ കോൺടാക്ട് ചെയ്യാം

ഓക്കെ എന്നാൽ